ട്രെക്കിങ്ങിന് ഹൈജീനെ സഹായിക്കുന്ന എന്ത് ഉപകരണങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് അവ നമ്മൾ വാങ്ങുന്നത് അതിന് അനുയോജ്യമായ കടകളിൽ നിന്നാണ് ഹെൽമെറ്റ് ഗ്ലൗസ് സോക്സ് കാൽ കയ്യ് ശരീരം മുഴുവനായെല്ലാം സംരക്ഷിക്കാനുള്ള ഉപകരണങ്ങളുണ്ടെങ്കിൽ മാത്രം വേണ്ടു ട്രക്കിങ്ങ് ഹൈക്കിങ്ങ് പോകാവൂ കാരണമെന്താ വെച്ചാൽ മലകളിൽ വാഹനങ്ങളിലൊക്കെ കയറുമ്പോൾ നമ്മൾ സുരക്ഷണ എടുക്കേണ്ടതാണ് വാഹനങ്ങളുപയോഗികുമ്പോൾ നമ്മൾ ഇതു നന്നായിട്ട് ഉപയോഗിക്കണം നമ്മൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ദോഷഫലങ്ങൾ വരുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വാഹനം നന്നായിട്ട് പരിപാലിക്കുക ട്രക്കിങ്ങ് ഹൈക്കിങ്ങ് മലമുകളിൽ കയറുക ജമ്പിങ്ങ് ഇതിനൊക്കെയായിട്ട് നമ്മൾ കൃത്യമായിട്ട് ശാരീരിക ക്ഷമതയുള്ളവരായിരിക്കണം നമ്മൾ അമിതാവേശം ഈ മേഖലിൽ പാടില്ല ഇതു വാങ്ങുന്ന പ്രത്യേക സ്ഥപനങ്ങളുടെ കടകളുണ്ട് ഗുണനിലവാരമുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ ഇങ്ങനെയുള്ള ഹെൽമറ്റ് ഷോട്സ് ഗ്ലൗസ് ഷൂ ചെസ്റ്റ് പാടുകൾ ഇവയെല്ലാം ഉള്ളത് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നന്നായിരിക്കും എന്നു തോന്നുന്നു നമ്മുടെ സുരക്ഷയാണ് എപ്പോഴും പ്രധാനം നമ്മുടെ സാഹസികത എപ്പോഴും നല്ലതാണ് പക്ഷേ അത് അമിതം ആവേശം കാണിച്ചാൽ അത് ദൂഷ്യ ഫലങ്ങളുണ്ടാകും എന്നായിട്ടാണ് അനുഭവപ്പെടുന്നത് നമ്മുടെ ദൈവതലമുറ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പുറകയിലേക്കാണോ എന്നു സംശയിക്കേണ്ടിരിക്കുന്നു